ക്രിസ്ത്യൻ സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്റ്റിയൻ സമുദായത്തെ കല്ല്യാണത്തിന് അതിപ്പം കുർബാന സോറി കല്ല്യാണത്തിന് എൻഗേജ്മെൻറ്റ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലെ ഫങ്ക്ഷനാണ് അപ്പം എൻഗേജ്മെൻറ്റ് അത് പള്ളിയിൽ പോയി പെണ്ണിൻറ്റവിടെ സമ്മതമാണ് എന്ന് അച്ഛൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കുന്ന ചടങ്ങാണ് അതിന് അത് അതു കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണുംകടി വീട്ടിൽ വരും പെണ്ണിൻ്റെ വീട്ടിൽ വരും പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് അടുത്തത് ഉറപ്പ് കല്ല്യാണം എന്നു നടത്തണമെന്നുള്ള കാര്യങ്ങൾ കാർന്നോന്മാരുമായിട്ട് തീരുമാനിക്കുന്നതാണ് അതു കഴിഞ്ഞിട്ട് കല്ല്യാണം ഉടൻ വരുന്ന അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ കല്ല്യാണം ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടു ദിവസം മുൻപ് മധുരം വെയ്പ്പെന്നു പറയും സംഗീത് അത് മധുരം വെപ്പ് തന്നെ ചെറുക്കൻ പെണ്ണിനെ അവിടെ പകൽ പിടിച്ചിരുത്തി കാർന്നവന്മാരും കൊച്ചിൻ്റെ ഗോഡ് മദറും ഗോഡ് ഫാദറും ആദ്യമേ കൊച്ചിന് മധുരം വെച്ചോട്ടെ എന്നുള്ളൊരു ചടങ്ങോടു കൂടി ആരംഭിക്കും എല്ലാവരും കൊച്ചിന് കേക്കും മുറിച്ച് മധുരം കൊടുക്കുന്നയാണ് അതിൻ്റെയൊരു നമ്മൾ സ്വീറ്റ്സായിട്ട് കൽക്കണ്ടവും മുന്തിരിങ്ങയും ഒക്കെ വെക്കും എല്ലാവരും കൊച്ച് വലുത് തൊട്ടും ചെറുതു വരെ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ ഫങ്ക്ഷന് അവർ എല്ലാവരും പെണ്ണിന് മധുരം വെപ്പിന് മധുരം വെച്ചു കൊടുക്കും പിന്നെ എന്ത് ആഘോഷങ്ങളായിട്ട് അന്ന് അന്ന് മാർഗ്ഗം കളിയൊക്കെ നമ്മുടെ കൊച്ചിന് കംപ്ലീറ്റ് മാർഗ്ഗം കളിയാണ് പിന്നെ ഇപ്പം സിനിമാറ്റിക്ക് ഡാൻസും അങ്ങനെയുള്ള ഡാൻസുകളും എല്ലാം പിള്ളേർ ചെയ്യാറുണ്ട് വീട്ടുകാർ മുഴുവൻ ഇതിനകത്ത് നില് കല്ല്യാണം പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഇപ്പോഴത്തെ മധുരം വെപ്പ് പരിപാടി ചെയ്യുന്നത് അതു കഴിഞ്ഞ് പിന്നെ ചെ നെക്സ്റ്റ് കല്ല്യാണം കല്ല്യാണത്തിനും ചെറുക്കൻ്റെ വീട്ടിലാണ് കല്ല്യാണം ഞങ്ങളുടെ പൊതുവെ ഞങ്ങടിവിടെ ഈ കോട്ടയം ഏരിയയിലൊക്കെ ചെറുക്കൻ്റെ വീ പള്ളിയിൽ വെച്ചാണ് കെട്ട് നടക്കുന്നത് അവിടേക്ക് പെണ്ണുമായിട്ട് ഞങ്ങൾ ചെറുക്കൻ്റെ എവിടെയാണോ ചെറുക്കൻ്റെ വീട് പള്ളികൾ എവിടെയാണോ അവിടെപ്പോയി ചെറുക്കൻ്റെ വീട്ടിൽ പള്ളിയിൽ കല്ല്യാണം ച്ച് മിന്നുകെട്ട് മിന്നു കെട്ടും അതു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫങ്ക്ഷനും കഴിഞ്ഞിട്ട് കല്ല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിൽ കയറ്റി പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പം അമ്മയ്ക്ക് അം അമ്മേ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേന് ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ അമ്മക്ക് ഒരു കച്ച കൊടുക്കും അവർ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും സാരിയോ പെണ്ണുങ്ങൾ സാരി ഉടുക്കുന്നതു കാരണം സാരിയോ അങ്ങനെ എന്താണേൽ അവരുടെ അതനുസരിച്ച് അവരുടെ സാഹചര്യമനുസരിച്ച് പിന്നെ കച്ച കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്